ഇപ്പോൾ ഞാൻ എം ബി എയാണ് പഠിക്കുന്നത് അതുകൊണ്ട്തന്നെ എൻ്റെ ആഗ്രഹങ്ങളും വളർന്നു എനിക്ക് ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് ലോജിസ്റ്റിക്സ് ഫീൽഡിലാണ് ഞാൻ നാല്പത്തഞ്ച് ദിവസം ഞാൻ ഇൻറ്റെൺഷിപ് ചെയ്തത് കൊച്ചി കെ എസ് ഐ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ അണ്ടെറിൽ വരുന്ന ഒരു ഇൻഡസ്ടറി കമ്പനിയിൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫ്രാ കണ്ടൈനർ ഫ്രെയ്റ്റ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്തത് ഞാൻ അവിടെ ഇൻ്റെൺ ആയിട്ട് നാപ്പത്തഞ്ച് ദിവസം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൊണ്ട്തന്നെ എൻ്റെ ഇൻട്രസ്റ്റ് മൊത്തം ആ ഒരു ഫീൽഡിലേക്കാണ് പോയത് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അവിടുത്തെ പഠിച്ച് പറഞ്ഞ് എടുക്കാൻ പറ്റി പഠിച്ചെടുക്കാൻ പറ്റി അത്കൊണ്ട് തന്നെ ഞാൻ എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ് ആ ഒരു ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അവിടെ എന്ന് പറഞ്ഞാൽ കണ്ടൈനർ ഫ്രെയ്റ്റ് സ്റ്റേഷനില് എക്സ്പോർട്ടും ക്ലീയറൻസിങ്ങും ഇമ്പോർട്ട് ക്ലീറൻസ് അതുപോലെ തന്നെ എക്സാമിനേഷൻ അതുപോലെ തന്നെ സി എച്ച് എം മാര് വരുമ്പോൾ അവരുടെ ക്ലാസ് അങ്ങനെ എനിക്ക് കുറച്ച് അറിവുകൾ എനിക്ക് അവിടുന്ന് കിട്ടി ആ ഒരു ഫീൽഡിനെ കുറിച്ച് അത് കൊണ്ട് തന്നെ ഇൻട്രേസ്റ്റ് അങ്ങോട്ട് പോയി അതുകൊണ്ട് തന്നെ എനിക്ക് ലോജിസ്റ്റിക്സ് ഫീൽഡിൽ ഒരു മാനേജർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രാക്ടീസ് ഒക്കെ നടത്തുന്ന ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം ഞാൻ ഇപ്പോൾ സ്പെഷ്യലൈസഷൻ എടുത്തിട്ടുള്ളത് മാർക്കറ്റിംഗ് ഓപ്പറേഷനുമാണ് എനിക്ക് ഓപ്പറേഷനില് എനിക്ക് ഒരു ഒപ്പുർട്യൂണിറ്റി കിട്ടിട്ടില്ലെങ്കിൽ എനിക്ക് മാർക്കറ്റിംഗ് എടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് രണ്ടുമാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം